ഹലോ ഹലോ ആഹ് ആഹ് ഉണ്ടല്ലോ ആഹ് ആഹ് ആഹ് ഹാ ആഹ് ഹാ ഹാ ഉണ്ട് നമുക്ക് ഉണ്ട് ഇവിടെ ഉണ്ട് കൊടുക്കാനുണ്ട് ആഹ് ആഹ് അത് ഇന്നിപ്പം വെളിയിലോട്ട് ഒക്കെ കൊണ്ടുപോവാനാണ് എന്ന് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സീല് ചെയ്തക്കെ തരും കഴിഞ്ഞാൽ ആഹ് നമുക്ക് ഓരോ കിലോ നമുക്ക് ഓരോ കിലോ ആയിട്ട് ഇത് തരും ആഹ് ആഹ് പക്ഷെ നമ്മൾ നമ്മളുടെ ഈ ഈ ഇവിടെ കിട്ടുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നതെ ഇച്ചിരി നല്ല വെളിച്ചെണ്ണ ആയത് കൊണ്ട് കുറച്ച് വിലക്കൂടുതൽ ഉണ്ട് കേട്ടോ മറ്റേ കടയിലെ അപേക്ഷിച്ച് നമ്മുടെ കടയിൽ ഇച്ചരെ വിലക്കൂടുതലുണ്ട് നല്ല സാധനം ആയതുകൊണ്ട് ആണ് ആഹ് കിലോയ്ക്ക് ഇപ്പം ഇരുനൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ വേടിക്കുന്നത് ആഹ് ഹാ അത് നല്ലതാ നമ്മുടെ ഇവിടെ നമ്മുടെ ഇതിൽത്തന്നെ ഒരു ഫാമ് ഉണ്ട് അവിടുന്ന് എടുക്കുന്ന തേങ്ങ കൊണ്ട് ആട്ടിയത് തന്നെയാണ് അപ്പം നമുക്ക് ഉറപ്പുണ്ട് നല്ലതാണ് എന്നുള്ളതിന് ഉറപ്പുണ്ടെ ആഹ് വല്ല വെളിയിൽനിന്ന് ഈ തമിഴ്നാട്ടിൽനിന്ന് ഒന്നും വരുന്നതല്ല ആഹ് അതുകൊണ്ടാ ആഹ് ആഹ് ആര്ന്ന് ആഹ് ഹാ ഹാ ആഹ് അപ്പം പിന്നെ ഉണ്ടല്ലോ നമ്മളാ ജൂലൈ ആഗസ്റ്റ് മാസം ഒക്കെ വരുന്ന സമയം ആവുമ്പം ചിലപ്പം നമുക്ക് ഒരു ചെറിയ വ്യത്യാസം ഒക്കെ വരും തേങ്ങായുടെ വിലയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പം കൂടിയും കുറഞ്ഞും അങ്ങനെയൊക്കെ ആഹ് ആഹ് അങ്ങനെയൊക്കെ വരും വ്യത്യാസം നല്ല വ്യത്യാസം വരും പിന്നെ നമ്മൾ ആഹ് ഡിസ്കൗണ്ട് നമ്മൾ അങ്ങനെ നമുക്ക് തേങ്ങയുടെ വിലയൊക്കെ വെച്ച് അല്ലേ നമുക്ക് ഡിസ്കൗണ്ട് പറയാന് പറ്റത്തുള്ളൂ ഓരോ സമയത്ത് ഓരോ വിലയല്ലേ അപ്പം അതൊക്കെ വെച്ച് നമുക്ക് അന്നത്തെ ആ വില അനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ട് തരാന് പറ്റത്തൊള്ളൂ നമുക്ക് ഇപ്പം അതിന്റെ വില നമുക്ക് കൃത്യമായിട്ട് പറയാന് പറ്റത്തില്ല ആഹ് ഹാ ഹാ അതുകൊണ്ട് ആഹ് അതുകൊണ്ടാ ആഹ് ആഹ് ആഹ് ആഹ് ഹാ ഇരുനൂറ്റി ആഹ് ആഹ് ആ അത് അത് ഞാന് പറഞ്ഞില്ലേ അത് ചിലപ്പം അവരും ഇങ്ങനെ പറയുന്നെങ്കിലും ചിലപ്പം അവർ നല്ല വെളിച്ചെണ്ണയായിരിക്കത്തില്ല കേട്ടോ അതിപ്പം നമുക്ക് അറിയത്തില്ല അത് ചിലപ്പം ഈ വെളിയിൽനിന്ന് വരുന്ന വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒക്കെ ആരിക്കും അവർ തരുന്നത് അങ്ങനെയ നമുക്ക് വില കുറച്ച് അവര്ക്ക് കൊടുക്കാന് പറ്റുവൊള്ളൂ ആഹ് ആഹ് ഞങ്ങൾ ആഹ് ആഹ് ഹാ അത് അതിനകത്ത് മിക്സഡ് ആണ് അതുകൊണ്ടായിരിക്കും അവര്ക്ക് അങ്ങനെ വില കുറച്ച് നമ്മൾ ഉറപ്പ് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് മേടിച്ച് ഇഷ്ടംപോലെ ആള്ക്കാർ വെളിയിലൊട്ടൊക്കെ നമ്മള് മേടിച്ച് കൊണ്ടു പോവുന്നുണ്ട് അപ്പം അവരൊന്നും ഇതുവരെ ആയിട്ട് ഒരു പരാതിയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ കൊള്ളത്തില്ല എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ആഹ് ആ എല്ലാം പാക്ക് ചെയ്ത് ഒക്കെ തരാം എല്ലാം അതൊന്നും കുഴപ്പം ഇല്ല ആ സമയം ആവുമ്പം പറഞ്ഞാൽ മതി ആഹ് ആഹ് ആഹ് ആഹ് ഏയ് അത് കുഴപ്പം ഇല്ല ഞങ്ങൾ പാക്ക് ചെയ്ത് തന്നോളാം ആഹ് ആഹ് അതിപ്പം സമയം ഉണ്ടല്ലോ ഡേയ്റ്റ് ഉണ്ടല്ലോ അടുത്ത അടുത്ത മാസം അല്ലേ വേണ്ടത് അപ്പത്തേക്കിന് ആഹ് അപ്പത്തേക്കിനും ആ പുതിയ ഇതുവരും അപ്പം ആ പുതിയ എണ്ണ എടുത്താൽ മതി ഇപ്പൊളെ മേടിച്ച് വെക്കേണ്ട ആഹ് ഹാ ഹാ ഹാ ഹാ ആഹ് ആഹ് എന്നാൽ ശരി ശരി എന്നാൽ കുഴപ്പം ഇല്ല ഞങ്ങൾ തന്നോളാം കേട്ടോ കുഴപ്പം ഒന്നും ഇല്ല അത് ഞങ്ങൾ സീല് ചെയ്ത് ഒക്കെ തന്നോളാം കേട്ടോ കുഴപ്പം ഇല്ല ആഹ് ശരി ഇല്ല അതെ നല്ല സാധനം ആവുമ്പഴത്തേക്കിനും കനയ്ക്കത്തില്ലന്ന് നമുക്ക് ഉറപ്പ് പറയാന് പറ്റത്തില്ല ഈ അതായത് ഒറിജിനല് സാധനം കനയ്ക്കും അതിന് നമ്മൾ അതിനുള്ള ആ അതായത് കുറേ നാൾ ഇരിക്ക്മ്പത്തേക്കിനും അതിനകത്ത് നമ്മൾ സാധാരാണ അതിനകത്ത് ഇച്ചരെ ഉപ്പിട്ട് വെക്കുകയൊക്കെ ചെയ്യാം അന്നേരം വലിയ കനപ്പ് വരത്തില്ലെന്നാ പറയുന്നത് നമ്മുടെ ഒറിജിനല് സാധനം ആവുമ്പം ആഹ് ആഹ് ആഹ് അങ്ങനെ ആള്ക്കാർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇപ്പം നമ്മൾ ഒത്തിരി നാൾ ഇവിടെ സൂക്ഷിച്ച് വെക്കാന് നമ്മുടെ കടയിൽ അങ്ങനെ വെക്കുന്നില്ല ആഹ് കൊണ്ടുപോവുന്നവരല്ലേ അങ്ങനെ വെക്കുന്നത് ആഹ് ഹാ ഹാ ആഹ് അങ്ങനെ ആഹ് കുഴപ്പം ഇല്ല അല്ലെങ്കിൽപ്പിന്നെ ഫ്രിഡ്ജ് വെളിയിലോട്ട് ഉള്ളവരാണെങ്കിൽ ഫ്രിഡ്ജില് വെക്കാം ആഹ് അങ്ങനെയാവുമ്പോൾ കുഴപ്പം ഇല്ല ആഹ് കുറച്ച് നാളത്തേക്കില് കിട്ടും ആഹ് ആഹ് ആഹ് ആഹ് വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ആഹ് ആഹ് തരാം തരാം കുഴപ്പം ഇല്ല കുഴപ്പം ഇല്ല ആഹ് ആഹ് ഹാ വിളിച്ചാൽ മതി ആഹ് വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ ശരി എന്നാൽ ആഹ് ശരി